ഹലോ ഇത് ആദിത്യനല്ലേ ആ ഞാൻ മറ്റെ സെറാമിക് ഷോപ്പ് ഓണറായിരുന്നു ഫ്രെഡി ആ ഞാൻ നിങ്ങളുടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം അത്യാവശ്യം നന്നായി വിറ്റു പോകുന്നുണ്ട് നമുക്കൊത്തിരി കസ്റ്റമേഴ്സുണ്ട് നിങ്ങളുടെ സാധനത്തിന് നല്ലൊരു ഫാൻ ബേസുണ്ട് നിങ്ങളുടെ ഈ ബോക്സിനാണെങ്കിലും പിന്നെയാ ആർട്ട് വർക്കിനൊക്കെ നല്ലൊരു ഫാൻ ബേസുണ്ട് അപ്പോള് അത്യാവശ്യം നല്ല കച്ചവടം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് നിങ്ങളെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങള് ഇത് ശാസ്ത്രിയമായി പഠിച്ചയാളാണോ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ അപ്പം ആ ഇതിപ്പം നിങ്ങളുടെ ഈയൊരു സാധനത്തിന് നല്ല ഡിമാൻഡുള്ളതുകൊണ്ടുതന്നെ നമുക്ക് ഇതിപ്പോള് കൂടുതല് ആവശ്യം വരുമായിരിക്കും ആ ഇനിയും വേണ്ടി വരുമായിരിക്കും അപ്പം നമ്മള് കൂടുതല് ഓക്കേ ഓക്കേ

ആ നിങ്ങളീ ഡിസൈനൊക്കെ എങ്ങനെയാണ് നിങ്ങളൊപ്പിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഒരു ഓ ഓ ഓക്കേ ഓക്കേ എന്താണെങ്കിലും നല്ലൊരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോള് അതുകൊണ്ട് നമുക്ക് ഭയങ്കരമൊരു ഓഡര് ഉണ്ട് അതുകൊണ്ട് അപ്പം നമുക്കിനി കൂടുതലാണെങ്കിലും ഓഡറുകളും കാര്യങ്ങളുമൊക്കെ വേണമെങ്കില് ഞാൻ വരുമ്പോള് തരാം വേറെ ഓഡറൊക്കെയാണെങ്കിലും പിടിച്ചു വേണമെങ്കിലും നമുക്ക് തരാം ഇപ്പോള് നമ്മുടെ ഈ ഷോപ്പ് സർക്കിളില് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ സെറാമിക്കൊക്കെ ചെയ്യുന്നത് അപ്പോള് അവരുടെ അടുത്താണെങ്കില് നിങ്ങള്ക്ക് ഒരു നല്ലൊരു കച്ചവടമൊക്കെ കിട്ടാനായിട്ട് ചാൻസുണ്ട് ആ ഹ ആ ഓക്കേ ആ അ അപ്പോള് നിങ്ങളുടെ കയ്യില് ഈ ആൻറ്റിക്കായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഇപ്പോള് നമ്മുടെ ഈ കടയില് ഇപ്പോള് ആൻ്റിക്കായിട്ടുള്ള കാര്യങ്ങള്ക്കൊക്കെ ഭയങ്കരം ഈ ഒരു നല്ലൊരു കച്ചവടം കിട്ടുന്നതാണ് അപ്പം കൂടുതലാളുകളും ചോദിച്ചുവരുന്നത് അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ആൻ്റിക് സാധനങ്ങൾ ഓ മെമ്മറീസുള്ള ഓർമ്മകളുള്ള സാധനങ്ങളായിരിക്കുമല്ലേ ഓ ആ ഈ ഈ നമ്പര് തന്നെയാണ് അപ്പം ഇതിനകത്ത് ഇങ്ങനെ അയച്ചാല് മതി അപ്പോള് ഞാൻ വേണ്ടത് അയക്കുകയാണെങ്കില് ഞാൻ ഒരു വില പറഞ്ഞാല് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ അല്ല ഒട്ടുമിക്ക ആളുകളും നമുക്ക് ഒരു അത്യാവശ്യം റെയറാണെന്ന് തോന്നുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ലേലം വേണമെങ്കില് വെയ്ക്കാം പക്ഷേ ലേലമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മള് വേറൊരു രീതിയിലേക്ക് പോകും അപ്പോള് നമുക്ക് അത്രയും പോകാനുള്ള സംവിധാനം നമ്മുടെയടുത്തില്ല അപ്പോള് അതുകൊണ്ട് ഇപ്പോള് കാണുന്ന ആ ഷോപ്പാണ് ഇപ്പം മേടിക്കുകയാണെങ്കിൽ അവിടെനിന്ന് മേടിച്ചു പോകട്ടെയെന്നുള്ള രീതിയിൽ അപ്പം ഞാൻ കൂടുതലെന്തെങ്കിലും ഓർഡറുണ്ടെങ്കില് ഞാൻ പറയാം ഓക്കേ അല്ല ഞാൻ വേറെ കൂടുതൽ ഓഡറുകളുണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കേ ആ ആ ആ ഓക്കേ ഓക്കേ അപ്പം ശരിയെന്നാല് താങ്ക് യൂ